വിദ്യാഭ്യാസ ലോണെന്നു പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ് നമുക്കെന്തെങ്കിലു ഒരു പഠിക്കാനൊരു കഷ്ടം വന്നാൽ കുറച്ച് പാവപ്പെട്ട കടുംബത്തിന് നല്ല പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് ഇനിയും പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കുറേ ആൾക്കാർ വിദ്യാഭ്യാസ ലോണെടുക്കുന്നുണ്ട് പക്ഷെ അത് കറക്റ്റായിട്ട് നമ്മൾ അടക്കണം പിന്നെ വിദ്യാഭ്യാസ ലോണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് കോളേജിൽ നിന്നു കിട്ടുന്നതല്ല അത് പിള്ളേരും ബാങ്കും ആയിട്ടുള്ള ഒരു എഗ്രീമെൻ്റാണ് ഏത് സ്റ്റുഡനൻ്റിനാണ് വിദ്യാഭ്യാസ ലോണ് വേണ്ടത് ആ സ്റ്റുഡൻ്റ് ബാങ്കിൽ പോയിട്ട് സംസാരിച്ചിട്ട് വിദ്യാഭ്യാസ ലോണ് വാങ്ങണം അതു പോലെത്തന്നെ പിന്നെ വിദ്യഭ്യാസ ലോണെന്നു പറയുമ്പോൾ അതിന് കുറച്ച് ഡോക്യൂമെൻറ്റ്സെല്ലാം ആവശ്യമുണ്ട് ഡോക്യൂമെൻ്റ്സ് പറഞ്ഞാൽ നമ്മളത് പാൻ കാർഡ് വേണം കുഞ്ഞി ഒരു ആ കുട്ടീൻ്റെ പാൻ കാർഡ് വേണം ജോയിൻ്റ് അക്കൗണ്ട് വേണം അതുപോലെ എന്ത് കോളേജ് ഡോക്യൂമെൻ്റ്സ് വേണം ബോണിഫൈഡ് സെർട്ടിഫിക്കറ്റ് പിന്നെ ഏത് കോഴ്സ് എടുത്തത് ആ കോഴ്സിനെ പറ്റിയിട്ടുള്ള അഫിലിയേഷൻ ലെറ്റർ വേണം ഇപ്പോൾ ഒരു നഴ്സിംഗ് കോഴ്സ് എടുത്തതെങ്കിൽ നമുക്ക് ഇന്ത്യൻ നേഴ്സിങ് കൗൺസിലിൻ്റെ അഫിലിയേഷൻ ലെറ്റേഴ്സ് പിന്നെ യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ലെറ്റേഴ്സ് അതെല്ലാം വേണം പിന്നെ പിന്നെ എന്ന് വച്ചാൽ നമ്മളെ നമുക്കൊരു ഫീസ് സ്ട്രക്ചർ വേണം നികുതിയടച്ച റെസീറ്റ് പിന്നെ നമ്മളെ ഒരു ഫോട്ടോ ആധാർ കാർഡിൻ്റെ കോപ്പി എസ് എസ് എൽ സി പ്ലസ് ടുൻ്റെ അറ്റെസ്റ്റെഡ് കോപ്പീസ് ഇതെല്ലാം നമ്മൾ ബാങ്കിന് കൊടുക്കണം ഒരു എഡ്യൂക്കേഷൻ ലോണിന് എഴുതുമ്പോൾ പിന്നെ അതല്ല പിന്നെ എഡ്യൂക്കേഷൻ ലോണിൻ്റെ പ്രോസെസ്സിങ് ടൈം ഡിഫറെൻ്റ് ആയിരിക്കും ചില ബാങ്കിന് ചില ടൈമായിരിക്കും ചില ബാങ്കിന് പെട്ടെന്ന് എഡ്യൂക്കേഷൻ ലോണ് കിട്ടും ചില ബാങ്കിന് കുറവായിരിക്കും കിട്ടുന്നത് പിന്നെ ഒരു നാലു ലക്ഷം മുതൽ ഏഴു ലക്ഷം വരെ നമുക്ക് കിട്ടും എഡ്യൂക്കേഷൻ ലോണ് ഒരു നാല് ലക്ഷത്തിനു നമ്മൾ അപ്ലൈ ആക്കിയതെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു അസറ്റ് കാര്യങ്ങളൊന്നും വേണ്ട പക്ഷെ ഏഴു ലക്ഷത്തിനു വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ആക്കിയെങ്കിൽ പാരൻസിൻ്റെ നമ്മളെ ഗാഡിയൻസിൻ്റെ സിഗ്നേച്ചർ വേണം പിന്നെ അതു വല്ലാതെ എഡ്യൂക്കേഷൻ ലോണ് എങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ചിലപ്പോൾ എഡ്യൂക്കേഷൻ ലോണ് നമ്മളെ കയ്യിൽ തന്നെ അയക്കും അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് അയക്കും ഫസ്റ്റ് ഇയർ ഫീസിൻ്റെ ആ ടൈമിൽ സെക്കൻ്റ് ഇയർ ആവുമ്പോൾ അത് നേരെ കോളേജിൻ്റെ ഡി ഡിക്ക് തന്നെ ആയിരിക്കും അവർ ട്രാസ്ഫെർ ചെയ്യുന്നത് നമ്മളെ കൈക്ക് തരില്ല അപ്പോൾ നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട് ഫസ്റ്റ് ഇയറിൻ്റെ അടക്കേണ്ട ഫീസിൻ്റെ ആ തുക നമ്മൾ കയ്യിൽ നമ്മൾ കരുതി വച്ചേക്കണം ഫസ്റ്റ് ഇയറിൻ്റെ ഫീസ് നമ്മൾ അടക്കണം അത് അടച്ചതിൻ്റെ ശേഷം ആയിരിക്കും നമുക്ക് എഡ്യൂക്കേഷൻ ലോണ് ചിലപ്പോൾ ബാങ്കിൽ നിന്ന് കിട്ടുന്നത് ആ ഫീസ് റെസിപ്റ്റ് കൊണ്ട് നമ്മൾ ബാങ്കിൽ കൊണ്ടു പോകണം അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് സെക്കൻഡ് ഇയർ ഫീസിനുള്ള ആ എമൗണ്ട് ചിലപ്പോൾ നമ്മളെ അക്കൗണ്ടിലേക്ക് വരും അല്ലെങ്കിൽ കോളേജ് ഡി ഡി വഴിയോ പോകും പിന്നെ അതല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നായിരിക്കണം നമ്മൾ എഡ്യൂക്കേഷൻ ലോണ് എടുക്കുന്നത് കാരണം അത് ഇൻ്ററസ്റ്റ് കുറവായിട്ടായിരിക്കും നമുക്ക് തരുന്നത് മറ്റെല്ലാ ബാങ്കിലാണെങ്കിൽ കോമ്പൗണ്ട് ഇൻ്ററസ്റ്റിൻ്റെ നിരക്കിലായിരിക്കും തരുന്നത്

അതൊന്നും ഉണ്ടാവില്ല ഗാഡിയൻ്റെ സിബിൽ സ്കോറ് അതെല്ലാം നോക്കും സിബിൽ സ്കോറ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ എഡ്യൂക്കേഷൻ ലോൺ എടുത്തെങ്കിൽ അവർക്കത് ഭാവിയിൽ കെട്ടാൻ കഴിയുന്നു പറയുന്നൊരു ഉറപ്പുണ്ടെങ്കിലാണ് ബാങ്ക് കൊടുക്കുന്നത് അപ്പോൾ ആ സിബിൽ സ്കോർ ആ സ്റ്റേറ്റ്മെൻറ്റ്സെല്ലാം ക്ലിയർ ആണെങ്കിൽ ഭാവിയിൽ ഇത്ര തുക എടുത്താൽ അവർക്കടക്കാൻ പറ്റും എന്നു പറയുന്ന ആ ഒരു ഉറപ്പ് ബാങ്കിന് കിട്ടിയെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് എഡ്യൂക്കേഷൻ ലോണ് സാങ്ക്ഷനാക്കുള്ളു പിന്നെ അതേ പോലെ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നായിരിക്കണം നമ്മൾ എഡ്യൂക്കേഷൻ ലോണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് എടുത്തെങ്കിൽ നമുക്ക് ഇൻ്ററെസ്റ്റും കുറവായിരിക്കും പെട്ടെന്ന് അടച്ചു തീരാനും പറ്റും മറിച്ച് മറ്റേ ബാങ്കിൽ നിന്ന് എടുത്താൽ അത് കോമ്പൗണ്ട് ഇൻ്ററെസ്റ്റിൻ്റെ നിരക്കിലായിരിക്കും എടുക്കുന്നത് പെട്ടെന്ന് അടച്ചു തീരാനും നമുക്ക് പറ്റില്ല

അതിൻ്റെ റെസിപ്റ്റ് നമ്മൾ ബാങ്കിൽ കൊണ്ടു പോകണം ബാങ്കിൽ കൊണ്ടു പോയിട്ടുള്ളത് പിന്നേ ഉള്ള എഡ്യൂക്കേഷൻ ലോണ് ചിലപ്പോൾ അവർ നമ്മളെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ബാങ്ക് ഡി ഡി ആയിട്ട് കോളേജ് ഡി ഡി അതു വഴി ട്രാൻസ്ഫാറാക്കും പിന്നെ എന്ന് വെച്ചാൽ ഫീസ് സ്ട്രക്ച്ചറ് പിന്നെ അതിൻ്റെ നികുതി റെസിപ്റ്റ് ഫോട്ടോസ് ആധാർ കാർഡ്സ് ഇങ്ങനത്തെ കുറച്ച് ഡോക്യൂമെൻറ്റ്സെ എല്ലാം നമ്മൾ കൊണ്ടു പോകണം എഡ്യൂക്കേഷൻ ലോണ് കിട്ടുന്ന സമയത്ത് പിന്നെ നമ്മുടെ ഗാഡിയൻസിൻ്റെ സിബിൽ സ്കോറും മറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്കൾ എല്ലാം അവർ നോക്കും അപ്പോൾ എഡ്യൂക്കേഷൻ ലോണെന്ന് പറഞ്ഞാൽ കുറേ ആൾക്ക് ഉപകാരപ്പെടുന്ന അവർ ഹയർ സ്റ്റഡീസിനെല്ലാം ഉപകാരം ഏത് കോഴ്സിന് വേണമെങ്കിലും നമുക്ക് എഡ്യൂക്കേഷൻ ലോണ് കിട്ടും എൻജിനീയറിങ് കോഴ്സിന് വേണമെങ്കിലോ ബാങ്കിങ് കോഴ്സസിനു വേണമെങ്കിലോ നമുക്ക് ഏത് ഫീൽഡിലാണോ താല്പര്യം ആ ഫീൽഡിൽ നമുക്ക് പഠിക്കണം പക്ഷെ പഠിക്കാനുള്ള ഇപ്പോൾ നമ്മളെ കുടുംബത്തിന് അച്ഛനമ്മമാർക്ക് നമ്മളെ പഠിപ്പിക്കാനുള്ള കഴിവ് കുറവാണെങ്കിൽ അവർ ഒരു എഡ്യൂക്കേഷൻ ലോണ് എഴുതിക്കൊടുക്കും അതായത് ഒരു നല്ല മാർക്ക് ഇപ്പോൾ ഒരു കുട്ടിക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് പിന്നെയും ഭാവിയിൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ലോണ് നമ്മളെ വീട്ടുകാർ പ്രിഫെറ് ചെയ്യും അത് നമുക്ക് ജോലി കിട്ടിയതിന് ശേഷം നമുക്ക് നമ്മളെ സാലറിയിൽ നിന്ന് കട്ടായിട്ട് പോവും ആ എഡ്യൂക്കേഷൻ ലോണ് എന്നുവെച്ചാൽ എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറഞ്ഞാൽ ഒരു ബാധ്യതയാണ് ബാധ്യതയാണ് അതേ പോലെ നമുക്കൊരു ഉപകാരമാണ് എന്ത് നമ്മൾ എന്തെങ്കിലുമൊരു പഠിക്കാൻ നമുക്കൊരാഗ്രഹം വന്നെങ്കിൽ നമുക്കത് ആ എമൗണ്ട് യൂസാക്കിയിട്ട് നമുക്ക് പഠിക്കാൻ എത്ര ഹയർ സ്റ്റഡീസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം പിന്നെ ബാധ്യത എന്നു വച്ചാൽ നമുക്ക് ജോലി കിട്ടിയതിന് ശേഷം നമ്മൾ അത് അടക്കണം അതേ പോലെ ഡോക്യൂമെൻ്റ്സ് മസ്റ്റായിട്ട് നമ്മൾ കൊണ്ടോണം ബാങ്കിൽ അതൊരു എഗ്രീമെൻ്റ് ബാങ്കിലത്തെ മാനേജരും ഒരു സ്റ്റുഡൻ്റുമായിട്ടുള്ള ഒരു എഗ്രിമെഎൻ്റ് പിന്നെ ഈ നമുക്ക് ബ്രോക്കർമാരെല്ലാം പറയില്ലേ ഹൻഡ്രഡ് പേസെൻറ്റേജ് എഡ്യൂക്കേഷൻ അതെല്ലാം കുറച്ച് തട്ടിപ്പാണ് അതിലെല്ലാം നമ്മൾ വിശ്വസിച്ചു കൂട നമ്മൾ ഡയറക്റ്റ് ബാങ്കിൽ പോവുക ബാങ്കിൽ പോയിട്ട് അവരോട് സംസാരിക്കുക ഇങ്ങനെ ഇങ്ങനെ എഡ്യൂക്കേഷൻ ഇന്ന കോഴ്സിന് നമുക്ക് വേണം എത്ര കിട്ടും എപ്പോൾ കിട്ടും എങ്ങനെയാണ് അതിൻ്റെ രീതികൾ അതെല്ലാം നമ്മൾ ചോദിക്കുക ചോദിച്ചിട്ട് അവർ പറയും നമുക്ക് ഇതിൻ്റെ ഇതെല്ലം വേണം ഫീസ് സ്ട്രക്ച്ചറ് നികുതിയടച്ച റെസിപ്റ്റ് ഫോട്ടോ ആധാർ കാർഡ് എസ് എസ് എൽ സി പ്ലസ് ടുൻ്റെ അറ്റെസ്റ്റെഡ് കോപ്പീസ് ഇതെല്ലം കൊണ്ടു വരണമെന്നു പറയും പിന്നെ ഒരു ദിവസം നമ്മൾ പുവാ അതെല്ലാം കൊണ്ടു കൊടുക്കുക പിന്നെ കുട്ടി കുട്ടിക്ക് ജോയിൻ്റ് അല്ലെങ്കിൽ ജോയിൻ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ആക്കുക പാൻ കാർഡ് കോളേജിലെത്തെ ഡോക്യൂമെൻ്റ്സ് ഏത് കോഴ്സിന് വേണ്ടീട്ടാണ് നമ്മൾ എടുക്കുന്നത് ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അതെല്ലാം കൊടുക്കണം ഇപ്പോൾ നഴ്സിംഗ് കോഴ്സാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളത് എൻജിനീയറിങ് കോഴ്സാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളത് ബാങ്കിങ് കോഴ്സാണാങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ ലോണെല്ലാം എടുക്കാൻ എഡ്യൂക്കേഷൻ ലോണ് വച്ചാൽ എടുത്താൽ പിന്നെ നമ്മൾ മോസ്റ്റ് പ്രിഫറായിട്ട് എടുക്കേണ്ടത് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് എഡ്യൂക്കേഷൻ ലോണ് എടുക്കേണ്ടത് ഇനി ആരെങ്കിലും എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവരോട് പറയണം അതായത് നാഷണൽ ബാങ്കിൽ നിന്നെ നമ്മൾ എഡ്യൂക്കേഷൻ ലോണ് എടുക്കാൻ പാടുള്ളൂ ഒന്നല്ലെങ്കിൽ നാഷണൽ ബാങ്കിൽ നിന്നു എടുത്തെങ്കിൽ ഇൻ്ററെസ്റ്റ് റേയ്റ്റ് കുറവായിരിക്കും മറ്റേ ബാങ്കിൽ നിന്നെല്ലാം എടുത്തെങ്കിൽ ഇൻ്ററെസ്റ്റ് റേയ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഫസ്റ്റിയറിനു ഫീസ് നമ്മൾ കരുതണം കയ്യിൽ ആ ഫസ്റ്റ് ഇയർൻ്റെ ഫീസ് നമ്മൾ അടച്ചതിനു ശേഷം ആ ഫീസ് റെസിപ്റ്റ് കൊണ്ടു പോയതിന് ശേഷം നമുക്കെന്താക്കാം നമുക്ക് ചെലപ്പോൾ എഡ്യൂക്കേഷൻ ലോണ് അവർ നമ്മളെ അക്കൗണ്ടിലേക്ക് അയക്കും അല്ലെങ്കിൽ കോളേജിൻ്റെ ഡി ഡിയിലേക്ക് തന്നെ അയക്കും പിന്നെ പ്രോസസ്സിംഗ് ടൈമ് ചിലപ്പോൾ കുറച്ച് ഡിലേ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് ഇയർൻ്റെ ഇത് കഴിഞ്ഞ പാട് തന്നെ കിട്ടും ചിലപ്പോൾ കുറച്ച് ഡിലേ ആയിരിക്കും ഡിലേ ആയിരിക്കും പിന്നെ ആ ഫീസ് സ്ട്രക്ച്ചറ് നികുതി റെസിപ്റ്റ് ആ കാര്യങ്ങളെല്ലാം നമ്മൾ കൊണ്ടു പോകണം പിന്നെ ഒന്നുമില്ലെങ്കിൽ ഒരു ലോണ് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു നമ്മുടെ പാരൻ്റ്സ്ൻ്റെ മുമ്പെടുത്ത ലോൺ ഉണ്ടാവും അതിൻ്റെ സിബിൽ സ്റ്റേറ്റ്മെൻ്റ് ചോദിക്കും അവർ അതിൽ എല്ലാം നേരെ അടച്ചിട്ടുണ്ടോ ഈ കുടുംബത്തിന് അടക്കാനുള്ള ശേഷി ഉണ്ടോ അങ്ങനെയെല്ലാം നോക്കിയിട്ട് തന്നെയായിരിക്കും അവർ കൊടുക്കുന്നത് പിന്നെ ഇങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും പെൻഡിങെല്ലാം ഉണ്ടെങ്കിൽ അവർക്കൊരു ഉറപ്പുണ്ടാവില്ലല്ലോ നമ്മൾ അടക്കും എന്നു പറയുന്നൊരു ഉറപ്പിലാണ് അപ്പം ഒരു ഗ്യാരണ്ടി അവർക്ക് കിട്ടിയെങ്കിൽ അതിന് വേണ്ടിയിട്ടാന്ന് ഈ ബാങ്കിൽ അവർ നമ്മുടെ സിബിൽ സ്കോറൊല്ലം ചോദിക്കുന്നത് ആ സിബിൽ സ്കോറ് പ്രോപ്പറാണെങ്കിൽ നമുക്ക് നമ്മൾ പറഞ്ഞ തുക കിട്ടും അതായത് ഫോർ ലാക്സ് വരെ നമുക്ക് ഒരു എന്ത് അസെറ്റിൻ്റെ ഒരു ഗ്യാരൻ്റിയില്ലാതെ നമുക്ക് കിട്ടും പക്ഷെ അതൊരു സെവൻ ലാക്സ് ആണെങ്കിൽ നമുക്ക് പാരൻ്റ്സ്ൻ്റെ ഗാഡിയൻസിൻ്റെ സിഗ്നേച്ചർ വേണ്ടി വരും അപ്പോൾ നമ്മളെ ഹയർ സ്റ്റഡീസിന് ഏറ്റവും ഉപകാരപ്പെട്ടൊരു സംവിധാനമാണ് ഇത് എഡ്യൂക്കേഷൻ ലോൺ